ഞാനാദ്യമായിട്ട് നീന്താൻ പഠിച്ചതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ഒരു വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടായിരുന്നു വെള്ളപ്പൊക്കം പ്രളയം അപ്പോൾ ആ സമയത്തിങ്ങനെ എല്ലാവർക്കും നീന്താൻ അറിയാണ്ട് ബുദ്ധിമുട്ടാൻ തുടങ്ങിയപ്പോൾ ഞാന് ഒരു നമ്മളുടെ ഇവിടെ ആയിട്ട് ഒരു പൂളുണ്ട് ഈ നീന്തൽകുളം എന്ന് പറയും അപ്പോൾ അവിടെ പോയി എന്നിട്ട് തമാശക്ക് ഒരാൾ പിടിച്ച് മുക്കി വെള്ളം പേടി ആയിരുന്നു അപ്പോൾ നീന്തും അവര് മുക്കിയേന്റെ ആ ഒരു വാശിക്ക് ഞാനെന്ത് ചെയ്തു നീന്തൽ പഠിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അദ്ധ്യാപകനുണ്ട് അപ്പോൾ അവര് പഠിപ്പിച്ച് തരും ആദ്യമൊക്കെ നമ്മള് പിന്നെ ചെറിയ കുറച്ച് സ്ഥലത്തൊക്കെ മാത്രം നീന്തി നീന്തിയൊക്കെ പോയി പിന്നെപ്പിന്നെ കോണോട് കോൺ നീന്താൻ തുടങ്ങി അങ്ങനെ നീന്തി നീന്തി നീന്തീയിട്ട് പിന്നെ ഓര് പിടി ആദ്യമെല്ലാം തോർത്ത് വയറ്റിന് കെട്ടിയിട്ട് അവര് പിടിക്കുമായിരുന്നു പിന്നെ അങ്ങനെ പിടിക്കാണ്ടായി അപ്പോൾ അത് നമ്മളറിയുന്നില്ല അവര് ബാക്കിൽ നിന്ന് മെല്ലെനെ വിടുകയാണ് ചെയ്യുക അങ്ങനെ സ്വന്തമായിട്ട് നീന്തി നീന്തി ഒരു ആത്മവിശ്വാസം വന്ന് അങ്ങനെ ബട്ടർഫ്ലൈ ഫ്ലോട്ടിങ് അതുപോലെത്തന്നെ മലർന്ന് ചത്ത പോലെ കിടക്കുന്നത് ഒരു ഫ്ലോട്ടിങ്ങ് ഉണ്ട് പിന്നെ മലർന്നു കിടന്നിട്ടുള്ള നീന്തല് പിന്നെ കാല് അടിക്കാണ്ട് കൈ കൊണ്ട് മാത്രം നീന്തുന്ന രീതിയില് പിന്നെ അതുപോലെത്തന്നെ കാല് മാത്രം അടിച്ചിട്ട് കൈ ഇങ്ങനെ വെറുതെ ഫ്രീ ഫ്രീ ആക്കി വിട്ടിട്ടുള്ള നീന്തല് പിന്നെ ഉള്ളില് അതായത് വെള്ളത്തിന്റെ ഉള്ളില് മുങ്ങിയിട്ട് കുറെ സമയം ശ്വാസം ഹോൾഡ് ചെയ്തിട്ട് പെട്ടന്ന് പൊങ്ങുന്ന പൊങ്ങുന്നത് അഹ് അങ്ങനെ പലതരം രീതിയിലുള്ള ശൈലികളുണ്ട് അതെല്ലാം പഠിച്ചു